നൃത്താവരണം അനുസ്മരണീയമാകുന്നതെന്ന് പറഞ്ഞാല് അത് അവര് കളിക്കുന്നതും അവര് പാട്ട് നൃത്തം എല്ലാം അതിനേയൊക്കെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ ഒന്ന് പഠിക്കുകയാണെങ്കിൽ നൃത്തം പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ മുദ്രകളും കളിയ്ക്കുന്ന രീതിയും അതിലെ പാട്ട് സോങ്ങ് അതെല്ലാം നല്ല രീതിയ്ക്കാണെങ്കിലാണ് അത് ഒരു നല്ല നൃത്തമായിട്ട് മാറുന്നത് അതിന് ഒരുപാട് പ്രവർത്തിക്കാൻ അതിൻ്റെ കോസ്റ്റ്യും കാര്യങ്ങള് എല്ലാം നോക്കിയിട്ടു വേണം നൃത്തം അവതരിപ്പിക്കാൻ തന്നെ അത് ചെറുപ്പം മുതല് പഠിക്കുന്നവരും ഉണ്ടാവും നൃത്തം ചെറുപ്പം മുതല് പഠിക്കുന്നവരും ഉണ്ടാവും ഇല്ലെങ്കില് ഇപ്പോൾ കുറച്ചായിട്ട് പഠിക്കുന്നവരൊക്കെ ഉണ്ടാവും ഇല്ലാണ്ട് പഠിക്കാണ്ട് തന്നെ നൃത്തം കളിക്കുന്നവര് ഒരുപാടുണ്ട് ഇപ്പോൾ അങ്ങനെ ഒന്നും നോക്കണില്ല ഇനി മേക്കപ്പ് പാട്ട് ഇതൊക്കെയാണ് അതിന് വേണ്ടത് നൃത്തം പഠിക്കുന്നവര് പഠിക്കാത്തവര് അങ്ങനെയൊന്നും ഇല്ല ആരാണ് നല്ല കളിക്കുന്നത് അവർക്കാണ് നൃത്തം ചെയ്യാനുള്ള അവസരം ഉള്ളത് എന്ന്